വിവർത്തനങ്ങൾ വായിക്കാറുണ്ട് വിവർത്തനങ്ങൾ ഇഷ്ടവാണ് എന്നാലും നമ്മുടെ സ്വന്തം ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് കൂടുതലും ഇഷ്ടം അതിലാണല്ലോ നമ്മുടെ യാഥാസ്ഥിതികതയെ കുറിച്ചും നമ്മുടെ തനിമയും മലയാള തനിമയിലുള്ള പുസ്തകങ്ങളിലൂടെയല്ലേ നമുക്ക് യഥാർത്ഥ മായിട്ടുള്ള നമ്മുടെ പ്രകൃതി ഭംഗിയെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും ഒക്കെ തനി ത സ്വന്തം ഭാഷയിലെഴുതുന്ന പുസ്തകങ്ങളായിരിക്കും കൂടുതലും നല്ലത് അത് വായിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം പിന്നെ ദൊസ്തോവസ്ക്യയുടെ ഒരു സങ്കീർത്തനം പോലുള്ള പുസ്തകം നം പെരുമ്പട ശ്രീധരമേനോൻ്റെ വിവർത്തനം അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ ആ നോവലുകളെല്ലാം തന്നെ ദൊസ് ദൊസ്തോവസ്ക്യയുടെ നോവലുകളെല്ലാം തന്നെ എനിക്കിഷ്ടവായതുകൊണ്ട് ഈ പെരുമ്പട ശ്രീ ഒരു സങ്കീർത്തനം പോലെയുള്ള പുസ്തകം അത് അത് ഞാൻ വളരെ ശ്രദ്ദയോടെ വായിച്ചിട്ടുണ്ട് അതൊരുപാട് നല്ലതായിരുന്നു പിന്നെ നമ്മുടെ ഇന്ദുലേഖ ധർമരാ ഇന്ദുലേഖ ഇങ്ങനെയുള്ള വള നോവലുകളുമൊക്കെ വായിച്ച് വായിക്കാനായിട്ട് വളരെ ഇഷ്ട്ടപ്പെടുവായിരുന്നു വളരെ നല്ലതായിരുന്നു നല്ല മനസ്സിന് സന്തോഷം ഹൃദ്യവും ലളിതവുമായ ഭാഷകളിലെ വിവർത്തനങ്ങൾ വളരെ ഇഷ്ടമാണ്